ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാ വർഷവും വേനല്ക്കാലത്ത് കട കടുത്ത വരള്ച്ചയാണ് ഉണ്ടാകാറുള്ളത് പിന്നെ ആ സമയത്ത് കിണറിലെ വെള്ളം ഒക്കെ ഏകദേശം വറ്റും പിന്നെ കുറച്ച് വെള്ളം ഒക്കെ ഉള്ളത് ഞങ്ങൾ പാചക ആവശ്യത്തിനും കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും പിന്നെ അടുത്ത വീടുകളിലും അങ്ങനെ തന്നെ അവർ കുറച്ച് വെള്ളം ഒക്കെ ഉള്ളതിനെ ഇട്ടേക്കും കാരണം കുടിക്കാനും പാചകത്തിനും ഒക്കെ അതല്ലേ ഉപയോഗിക്കാന് പറ്റുള്ളൂ പിന്നെ ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ അവർ അടുത്തുള്ള വീടുകളില് നിന്നും കുടിക്കാനും പാചകത്തിനൊക്കെ ഉള്ള വെള്ളം എടുത്തുകൊണ്ട് പോവും പിന്നെ തുണി അലക്കാനും കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങള്ക്കും ആയിട്ടൊക്കെ ഉള്ള വെള്ളം ഞാൻ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടി കൊണ്ട് അതെന്ന് പറഞ്ഞാൽ അടുത്ത് ഒരു കുളം ഉണ്ടായിരുന്നു ഇത്തിരി അടുത്തായിട്ട് തന്നെ പിന്നെ വേറെ ഒരിടത്ത് ഒരു റബ്ബര് കാട്ടിൻറെ ഇടയ്ക്ക് രണ്ട് കല്ലുകള് കല്ലിന്റെ ഒരു പാറകെട്ടിന്റെ ഇടയിൽ നിന്ന് ഇത്തിരി ഒരു നീരുറവ വന്നു കൊണ്ടിരുന്നു അപ്പം അത് നമ്മൾ നാട്ടുകാർ എല്ലാവരും കൂടെ നന്നായിട്ട് മെയിൻ ചെയ്ത് മെയിന്റെയിന് ചെയ്ത് ഒരു പൈപ്പ് ഒക്കെ ഇട്ട് എടുത്തു അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം ആൾക്കാർ അവിടെ പോയി നിന്ന് തന്നെ കുളിക്കുവേം തുണി അലക്കുവേം പിന്ന വീ വീട്ടിൽ മറ്റുള്ള കാര്യങ്ങള്ക്ക് ആവശ്യത്തിന് വേണ്ടി അവിടുന്ന് എടുത്തുകൊണ്ട് വരിക ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ ആ വരള്ച്ചയെ നേരിടുന്നത് പിന്നേ പിന്നെ ഇത്തിരി അകലത്തായിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ വണ്ടി ഒക്കെ ഉള്ളവർ ഇത്തിരി ദൂരത്ത് ഒരു ആറ് ഒഴുകുന്നുണ്ട് അവിടെ പോയി തുണി അലക്കുവേം കുളിക്കുവേം ഒക്കെ ചെയ്തിട്ട് വരും പക്ഷേ ഞങ്ങൾ ഒക്കെ അടുത്തുനിന്ന് തന്നെയാണ് പോവുന്നത് കാരണം വണ്ടി ഒന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് വരാനും എല്ലാം ഉള്ള സൗകര്യത്തിന് വേണ്ടി മിക്കവാറും ഞങ്ങൾ കുളത്തിന് ഈ ചിറയിൽ പോവുന്നതിനേക്കാളും ഞങ്ങള വീട്ടിൻറെ അടുത്തുള്ള ഈ വെള്ളം ഇങ്ങനെ പാറയുടെ ഇടയ്ക്ക് നിന്ന് വരുന്ന ആ വെള്ളത്തിനെയാണ് കൂടുതലും ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് പിന്നെ പിന്നെ നാട്ടിന്പുറം ആവുമ്പം പിന്നെ വേറെ ആകെയുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെള്ളം കിണറിൽ ഇത്തിരി കുറഞ്ഞാലും തൊട്ടടുത്തുള്ള വീട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി എടുക്കാന് സാധിക്കും എന്നുള്ളതാണ് അവർ അതിനൊരിക്കലും തരില്ല എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ജലക്ഷാമത്തിനെ നേരിട്ടത് ഇപ്പം പിന്നെ കുഴപ്പമില്ല ഇപ്പം പിന്നെ പൈപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് അത് കാരണം ഈ വേനല് കാലത്തും ആഴ്ചയിൽ ഒരു ദിവസം അവർ ആ പൈപ്പ് വഴി വെള്ളം തരും അപ്പോൾ അത് വലിയ ടാങ്കുകളൊക്കെ വെച്ച് അതിൽ പിടിച്ചു വയ്ക്കും പിടിച്ച് വെച്ചതിന് ശേഷം ആ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് കാര്യങ്ങളൊക്ക ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം വേറെ ഒന്നും അല്ല സ്കൂളിലൊക്ക പോകാന് വേണ്ടി ഇരിക്കുമ്പോൾ രാവിലെ പോയി ഇവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും ആള്ക്കാരൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുളിച്ചിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വെള്ളം ഉപയോഗിക്കാതെ കുളിക്കാതെ ഒന്നും പോവാനും സാധിക്കില്ല അങ്ങനെ ഒക്കെ ഇത്തിരി പ്രശ്നങ്ങളൊക്ക നേരിട്ടിട്ടുണ്ട് പിന്നെ രാവിലെ കിണറിലും കൂടെ വെള്ളം ഇല്ലാതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ബക്കറ്റ് ഒക്കെ പിടിച്ച് അടുത്തുള്ള ഏതെങ്കിലും വീടുകളിലൊക്ക പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കണം കൊടുത്താലല്ലേ അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാന് പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ ഒക്കെ ചെയ്ത് വെള്ളം ഒക്കെ എടുത്തുകൊണ്ട് വരും ഞങ്ങൾ പിന്നെ കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെയാണ് പോവുന്നത് പോയി എല്ലാവരും കൂട ഒരുമിച്ച് വെള്ളം ഒക്കെ എടുത്തുകൊണ്ട് വരും പിന്നെ ഇപ്പം പൈപ്പ് വന്നത് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വലുതായിട്ട്ല്ല എന്നാലും ഇത്തിരി അത്യാവശ്യം ഒക്കെ ആവുമ്പോൾ പ്രശ്നമാണ് പിന്നെ വേനല്ക്കാലത്ത് ബന്ധുക്കളൊക്കെ വരുമ്പോഴും അങ്ങനെ തന്നെ വെള്ളം ഇല്ലാത്തത് കാരണം അവര്ക്ക് ഈ വേനല്ക്കാലത്ത് വന്ന് നിൽക്കാനും ബുദ്ധിമുട്ടാണ് നമ്മളെ പോലെ അല്ലല്ലോ അവർ പിന്നെ പട്ടണത്തിൽ നിന്നൊക്കെ വരുമ്പോൾ അവർ വെള്ളം ഒക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നത് കാരണം അവര്ക്ക് ഇങ്ങനെയൊക്ക പോയി നിന്ന് വെള്ളം ഒക്കെ എടുക്കുന്നതും ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അവർ തോന്നുന്നത് അവര്ക്ക് തോന്നുന്നത് അപ്പം പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ തന്നെ വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെയൊക്ക വെള്ളമില്ലായ്മ എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അതെല്ലാം വളരെയധികം മാറിയിട്ടുണ്ട്